നമ്മൾ റേഡിമേഡ് ഡ്രസ്സുകൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ നമ്മളുടെ ശരീരത്തിനിണങ്ങുന്ന രീതിയിൽ നമ്മള് അതിനെ ശെയ്പ്പ് ചെയ്ത് രീതിയിലാക്കി വേണം നമ്മളുപയോഗിക്കാന് എന്നാൽ നമ്മൾ തുണികളെടുത്ത് അതിനെ നമ്മൾ അളവില് നമ്മുടെ ഇഷ്ടത്തില് നമുക്ക് തയ്ക്കാൻ സാധിക്കുന്നതാണ് ഇപ്പഴത്തെ ആളുകൾക്ക് ഏറ്റവും ഇഷ്ഠം റേഡിമേഡ് വസ്ത്രങ്ങൾ ചിലപ്പോൾ നമുക്കത് വ വലിപ്പമോ അതിന്റെ ഡിസൈനോ കഴുത്തുകളുടെ ഡിസൈനോ കൈകളുടെ ഡിസൈനോ മോഡലോ ഒന്നും നമുക്ക് ഇഷ്ടപ്പെടാറില്ല എന്നാൽ നമ്മളൊരു തുണിയെടുത്ത് നമുക്കിഷ്ടമുള്ള രീതിയില് അതിന്റെ കയ്യ് കഴുത്ത് അയിന്റെ വർക്കുകള് നമുക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് സ്വന്തമായി തുന്നുന്ന തുണി സ്വന്തമായല്ല റെഡിമേഡ് തയ്യൽ സ്ഥാപനങ്ങളിൽ തുന്നുന്ന തുണികളോട് ഏറ്റവും ഇഷ്ടമുള്ളത്